എനിക്ക് ഹൈക്കിങ്ങ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് മലകളാണ് കാരണം നമ്മൾ കുറേ പ്രതീഷയോടുകൂടി മലയെല്ലാം കയറി അങ്ങ് മുകളിൽച്ചെന്ന് ആ പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് അവസാനം സൂര്യൻ ഇങ്ങനെ നമ്മളിൽനിന്നു മറഞ്ഞ് പോവുന്നതും ആ കിരണങ്ങൾ ഇങ്ങനെ അസ്തമിക്കുന്നതും അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പം അതൊരു നമുക്ക് മനസ്സിന് നല്ലൊരു കുളിർമ ഒക്കെ നൽകും നമുക്ക് ആ ഹൈയ്ക്ക് ചെയ്താൽ മലയുടെ മുകളിൽച്ചെന്ന് സൂര്യാസ്തമയം കാണാനായിട്ട് കാണുമ്പം നമ്മുടെ മൈൻഡ് തന്നെ വളരെ ക്ലിയർ ആകും പിന്നെ പ്രകൃതിയുടെ ആ ഒരു സന്ധ്യാസമയം സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് പക്ഷികൾ ചേക്കേറുന്നതും അതുപോലെത്തന്നെ ആ സമയത്ത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മേഘങ്ങൾക്കിടയിലുള്ള ആ ആ മാറ്റങ്ങളെല്ലാം നമുക്ക് ഡയറക്റ്റ് കാണാനായിട്ട് നമുക്ക് മനസിന് ഏറ്റവും കുളിർമ തരുന്ന ഒരു കാഴ്ച്ചയാണ് ഇത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഹൈക്ക് ചെയ്യ്ന്നത് മല പ്രദേശത്ത് മാള മുകളിലേക്ക് ഹൈക്കിങ്ങ് ചെയ്യാനായിട്ടാണ്